ഇപ്പോൾ ഉത്സവങ്ങൾക്കൊക്കെ ആണെങ്കിൽ വിഗ്രഹം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ പോവുന്നത് ഇവിടെ അടുത്തുതന്നെയുള്ള അമ്പലത്തിലാണ് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ പോവുന്നുണ്ടായിരുന്നത് പിന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മളൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും നമ്മൾ ഒരു ആചാരത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം നമ്മളെ ദൈവം അനുഗ്രഹിക്കുക അങ്ങനത്തെ ഒരു ഉപാസന എന്താണ് പറയുക ഒരു ഇത് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ ഉള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് നല്ല ഒരു തൃപ്തി ആയിട്ടാണ് ഉള്ളത് അപ്പം നല്ല രീതിയിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ വേണ്ടതാണ് ഇപ്പ മതപരിപാടികൾക്ക് ആണെങ്കിലും വിഗ്രഹങ്ങൾ ഇല്ലാത്ത മതപരിപാടികൾ ഒന്നും ഇല്ല അതായത് ഹിന്ദു മതത്തിലാണെങ്കിൽ കൃഷ്ണൻ കൃഷ്ണ വിഗ്രഹം അങ്ങനത്തെ പലതരം ഇപ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം അങ്ങനത്തെ പലതരം വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പൈസയും പിന്നെ നമുക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു ഇതും കൂടെ കിട്ടുള്ളൂ